ആ അതെ അതെ മൈജി സിക്ട സെൻ്ററിലെ സഞ്ജയ് മാസ്റ്റർ ആണ്

ആ അതെ പറയൂ

ആ ഞാൻ ഞാൻ ആ ഞാൻ പറയാം അതായത് നിങ്ങൾക്ക് ഇപ്പം ബോഡി ഷേപ്പ് വി ഷേപ്പ് പോലെ ആണ് അപ്പം അതിൽ നിങ്ങൾക്ക് സ്ക്കിന്നി ഫാറ്റ് ഉണ്ട് അപ്പം ഞങ്ങൾ ജിമ്മിൽ നിന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് ഒരു ഇതിൻ്റെ മൂന്ന് പാക്ക് ആണ് ഓർഡർ അതായത് ആദ്യത്തെ ഒരു മാസം സാധാരണ ഇതിൽ വെറും ട്രെയിനിംഗ് ആണെന്ന് ഉണ്ടെങ്കിൽ മസിൽ ഗ്രോത്തും പിന്നെ ബോഡി ഷേപ്പ് മാറ്റാൻ ആണെങ്കിൽ അഞ്ഞൂറ് പിന്നത്തൊരു പാക്ക് എന്നു പറഞ്ഞാൽ ന്യൂട്രിയൻ ന്യൂട്രിയൻസ് ആ റിക്വയർമെൻ്സിൽ കൊടുക്കും പിന്നെ പ്രോട്ടീൻ പ്രൊവൈഡിംഗും പിന്നെ സാധാരണ വർക്കൗട്ടും അതിന് എഴുന്നൂറ്റമ്പത് പിന്നെ ഒര് ആയിരത്തി ഇരുന്നൂറിൻ്റ ബാക്കിയുള്ള പ്രോട്ടീനും പിന്നെ ഒരു ട്രെയിനറ് എക്സ്ട്രാ ഒരു ട്രെയിനറെ വച്ച് നിങ്ങളെ ട്രെയിൻ ചെയ്യും ആ സംഭവങ്ങൾ ഇതിനെ സ്ക്കിന്നി ഫാറ്റ് എന്ന് അല്ലെ പറഞ്ഞത് അപ്പം സ്ക്കിന്നി ഫാറ്റിനായിട്ടിതിൽ പുതിയൊരു ഡയറ്റ് സെറ്റ് ചെയ്യും അപ്പം അങ്ങനെ ആണ് അപ്പം നിങ്ങൾ വരികയാണെങ്കിൽ നാളത്തൊട്ട് വരാം വേറെ എപ്പം വേണമെങ്കിലും വരാം ഇവിടെ ഞാൻ ഉണ്ടാവും ആ വന്ന് കണ്ടാൽ മതി വീക്കിലി വീക്കിലി ശനിയാഴ്ച്ച വരെ ഉണ്ട് നിങ്ങൾക്ക് ഇപ്പം അതല്ല ആ ആയിരത്തിരുന്നൂറിൻ്റ പാക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂട്രിയൻസ് സംഭവങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് പറഞ്ഞുതരും നിങ്ങൾക്ക് എപ്പെപ്പം കഴിക്കണം എന്നൊക്കെ ദിവസം ഒരാഴ്ചയ്ക്കുള്ളിൽ പറഞ്ഞു തരും ആ അതെ അതെ നിങ്ങളെ സ്ക്കിന്നി ഫാറ്റ് ആയതുകൊണ്ട് തന്നെ ഓയിൽ ഉള്ള സംഭവങ്ങൾ കുറയ്ക്കുകയും ഫുള്ള് പ്രോട്ടീനും പിന്നെ നിങ്ങളെ മസിൽ ഗ്രോത്തും പിന്നെ ആ വെയിറ്റ് എടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ മറ്റെ ന്യൂട്രിയൻസ് കഴിക്കുക ഫുഡ് കഴിക്കുക പിന്നെ മസിൽ ഗ്രോത്തും അതാണ് മെയിൻ ആ അതെ അതെ വേറെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ അത് ഇപ്പോൾ അത് നിങ്ങളുടെ ആത്മാർത്ഥത പോലെ ഇരിക്കും ആത്മാർത്ഥത നല്ല അതായത് നമ്മൾ പറയണതൊക്കെ കറക്ട് ആയിട്ട് തിരിയുന്നുണ്ടെങ്കിൽ ഒര് ആറ് മാസത്തിനുള്ളിൽ കുറയും അത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാമെന്ന് ഉണ്ടെങ്കിൽ ടൈം എടുക്കും അത് അത് ഞാൻ പറയാമല്ലോ ഞങ്ങളുടെ ജിമ്മിലൊക്കെ കറക്ട് ആണ് അതായത് കറക്ട് ആയിട്ട് നിങ്ങൾ ന്യൂട്രിയൻസ് ഒക്കെ നിങ്ങൾ എല്ലാം ചെയ്ത് കയിഞ്ഞാൽ ആറു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു നല്ലൊരു ഇഫെക്ട് കിട്ടും

ആ അത് ഭക്ഷണത്തിന് അവൻ്റെ കയ്യിലിരിപ്പുതന്നെ ആണ് മാറ്റം എല്ലാം ജിമ്മിൽ എന്തായാലും ഉണ്ടാവും ആ പിന്നെ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലൊ

അപ്പം അപ്പം ശരി വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലൊ നിങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ വിളിച്ചാൽ മതി ആ പറയൂ ആ ദിവസം ഒര് രണ്ടര മണിക്കൂർ ആണ് ഞങ്ങൾ വയ്ക്കുന്നത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് ജോലി ഉണ്ട് ക്ലാസ് ഉണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് അനുസരിച്ച് പോവാം ആ അതെ ജിമ്മിൽ ആണ് ആ അത് അത് വർക്കൗട്ട് പെട്ടെന്ന് ആ ബാറ് വീണതാണ് ഇല്ലില്ല അങ്ങനെ പറ്റില്ല നിങ്ങൾക്ക് ഒരു ഒര് രണ്ട് മാസം മാസം നിങ്ങൾ അഞ്ഞൂറ് അടയ്ക്കുകയാണ് നല്ലത് ഒരുമിച്ച് അടച്ചാൽ അത് ശരിയാവില്ല പിന്നെ നിങ്ങൾ പെട്ടെന്ന് ഇടയ്ക്ക് വച്ച് വരാണ്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ ആ പൈസ ഞാൻ തിരിച്ച് തരേണ്ടി വരില്ലെ ആ അതൊക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും അതൊക്കെ ഞങ്ങളെ അതൊക്കെ ഞങ്ങളുടെ കമ്പനി സാധനം തന്നെ ഉണ്ട് പ്രോട്ടീൻ ആയാലും ക്രിയാറ്റിൻ ആയാലും ബാക്കി ഉള്ള ന്യൂട്രിയൻസ് ഒക്കെ ഞങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യും അല്ല ഒരു മൂന്നാല് പേര് ഉണ്ട് ആ അപ്പം അതാണ് പറഞ്ഞത് ഒരു പിന്നെ സർട്ടിഫൈഡാണ് എല്ലാവരും ഞങ്ങൾക്ക് ഇതൊക്കെ കഴിഞ്ഞ മാസം മിസ്റ്റർ പാലക്കാടിൻ്റെയൊരു ട്രോഫി കിട്ടിയെന്നു അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ തിരക്കിലാണ് പിന്നെ വയ്ക്കാം അപ്പം അല്ല പിന്നെ വിളിക്കാം കേട്ടോ ആ ശരി ശരി നാളെ വന്ന് ലിസ്റ്റ് ചെയ്താൽ മതി ആ ശരി ശരി